വിവാഹങ്ങളിൽ ആളുകൾ വധുവിന് പല തരം സമ്മാനങ്ങൾ നൽകാറുണ്ട് അനവധി സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അലമാര പലഹാരങ്ങൾ വസ്ത്രങ്ങൾ സാരി പുതപ്പ് പണം സ്വർണ്ണം ചിലപ്പോൾ വൈരങ്ങൾ വരെ കൊടുക്കാറുണ്ട് അങ്ങനെ പലതും വധുവിന് വിവാഹ സമയത്ത് കൊടുക്കാറുണ്ട് അലമാര കൊടുക്കൽ എന്നു പറഞ്ഞ് കേരളത്തിലൊരു ചടങ്ങ് തന്നെ ഉണ്ട് ആ ചടങ്ങിൽ ബന്ധുമിത്രാദികൾക്ക് പലഹാരങ്ങൾ കൊടുക്കുന്നത് കല്യാണ പെണ്ണിൻറ്റെ വീട്ടുകാർ ബന്ധുമിത്രാദികൾക്ക് പലഹാരം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അലമാര അലമാര കൊടുക്കൽ എന്നു പറഞ്ഞ ആ ആ ചടങ്ങിൻറ്റെ അത് വിവാഹം പോലെ തന്നെ അതിൻറ്റെ കൂടെ ഉള്ള ഒരു ഇമ് വളരെ പ്രധാനമായ ഒരു ചടങ്ങ് തന്നെയാണ് ഈ കല്യാണത്തിൻറ്റന്ന് ബന്ധുമിത്രാദികൾ വധുവിന് പലതരം സമ്മാനങ്ങൾ സ്റ്റേജിൻറ്റെ മുകളിൽ കയറി കൊടുക്കാറുണ്ട് അതിൽ പലതും ഉണ്ടാകാം അത് വധു ആഗ്രഹിച്ച സാധനങ്ങളായിരിക്കാം ചിലപ്പോൾ സ്ഥിരമായി നമ്മൾ കാണുന്നത് ഏതെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോക്കുകളോ അങ്ങനെ അങ്ങനെന്തെങ്കിലും സാധനങ്ങളായിട്ടാണ് സാധാരണ നമ്മൾ കാണാറ് അങ്ങനെ പലതും സമ്മാനങ്ങളായിട്ട് വധുവിന് കൊടുക്കാറുണ്ട് മൈലാഞ്ചിയുടെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കല്യാണത്തലേന്ന് അത് പോ ഇതേപോലെ തന്നെ കസവ് മുണ്ട് സാരീ അങ്ങനെയുള്ള സമ്മാനങ്ങളും വധുവിന് കൊടുക്കാറുണ്ട് പോരാത്തതിന് സ്വർണ്ണം കാർ അങ്ങനെയുള്ള സമ്മാനങ്ങളും ബന്ധുമിത്രാദികൾ അടുത്ത ബന്ധുക്കൾ എല്ലാം കൊടുക്കാറുണ്ട് കൂട്ടുകാരാകട്ടെ ഇച്ചിരി കുറുമ്പുള്ള സമ്മാനങ്ങളും കൊടുക്കാറുണ്ട് അവരുടെ വളരെ സന്തോഷമുള്ള സ സമയങ്ങളിൽ എടുത്ത ഫോട്ടോസ് അടങ്ങിയ ആൽബംസ് അങ്ങനെയുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ വധു ആയ പെണ്ണ് ആളുടെ ചെറുപ്പത്തിൽ കാണിച്ച കുറുമ്പുകൾ കുസൃതികൾ അതിൻറ്റെയൊക്കെ വീഡിയോസ് ഒരുമിച്ച് കൂട്ടി അങ്ങനെയൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാറും ചില കല്യാണങ്ങളിൽ പതിവുണ്ട് അങ്ങനെ പല സമ്മാനങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും കൂടി കല്യാണ പെണ്ണിന് കൊടുക്കാറുണ്ട് സ്ത്രീധനം നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ ഇല്ല എന്ന് പറയാനും വയ്യാ ഉണ്ട് എന്നു പറയാനും വയ്യാ പക്ഷേ ഈ സമ്മാനങ്ങളിൽ ഒപ്പം ചില സമയങ്ങളിൽ സ്ത്രീധനം കൊടുക്കാറുണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിലല്ല ഭാരതത്തിൽ സ്ത്രീധനം കൊടുക്കുന്നത് വിലക്കിയിരിക്കുകയാണ് അത് ശിക്ഷാർഹമാണ് എന്നാലും ആരുമറിയാതെ ചെലപ്പോൾ സ്ത്രീധനമായി സ്വർണ്ണം പണം കാറുകൾ വില കൂടിയ കാറുകൾ വില കൂടിയ വസ്തുക്കൾ ചെറുക്കൻറ്റെ വീട്ടുകാർ ചോദിക്കാറുണ്ട് ചോദിച്ചാൽ മാത്രമേ എത്ര എത്ര പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള സ് വധുവാണെങ്കിൽ പോലും ചെറുക്കൻറ്റെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ ഈ വില കൂടിയ സമ്മാനങ്ങൾ കിട്ടിയേ അവരടങ്ങു അല്ലെങ്കിൽ അവർ കല്യാണത്തിന് സമ്മതിക്കുകയേയില്ല അല്ലെങ്കിൽ അവർ കല്യാണം മുടക്കും അല്ലെങ്കിൽ കല്യാണത്തിൻറ്റെ കല്യാണത്തിന് അതിൽ നിന്ന് ഒഴിയുകയും ആ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട് കുറ്റം പറയുകയും അല്ലെങ്കിൽ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞ് വധുവിനെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയുകയും വരെ ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ മനുഷ്യർ ക്രൂരരാകാറുണ്ട് ഇത് മാനുഷികമായ ഒരു വിലയല്ല ആ സമയങ്ങളിൽ സ്ത്രീധനം കൊടുക്കുന്നത് വളരെ മോശമായ ഒരു കാര്യം കാര്യം തന്നെയാണെന്നാണ് ഞാൻ പറയുക ഒരു വ്യക്തിക്ക് എത്ര ഹീനമായ പ്രവർത്തികളിലൂടെ ചെയ്യാൻ പറ്റുമോ അതു തന്നെയാണ് സ്ത്രീധനം വാങ്ങുക എന്ന ഒരു പ്രവൃത്തി സമ്മാനങ്ങൾ സ്നേഹത്തോടെ കൊടുക്കുന്നതുണ്ട് അത് ആ വധുവിന് അവകാശപ്പെട്ടതാണ് ഇനി സ്ത്രീധനമായി ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആ വധുവിൻറ്റെ അമ്മായിയമ്മ അത്വായ അതായത് വരൻറ്റെ അമ്മ ഈ വധുവിൻറ്റെ സ്വർണ്ണം മൊത്തം സ്വന്തമാക്കുകയും കൈക്കലാക്കുകയും വധുവിന് ചില്ലി കാശ് പേരില്ലാതെ കൊടുക്കുകയും ചെയ്യാറുണ്ട് വധുവിൻറ്റേതായ സകല വസ്തുക്കളും സകല സമ്പത്തും സകല സ്വർണ്ണം പണം എന്നു ലഭിച്ച സമ്മാനങ്ങൾ മൊത്തം വധുവിൻറ്റെ അമ്മ അല്ലെങ്കിൽ വധുവിൻറ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ വരൻറ്റെ കുടുംബം സ്വന്തമാക്കാറുണ്ട് അല്ലെങ്കിൽ അടിച്ചു മാറ്റാറുണ്ട് വധുവിന് ഒന്നും ലഭിക്കാറില്ല ഇങ്ങനത്തെ അവസരങ്ങൾ വളരെ മ്ലേച്ഛമാണ് ലജ്ജാവഹമാണ് കാരണം ആ സമ്മാനങ്ങൾ വധുവിന് കിട്ടിയത് വരനു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ വരനു കൊടുക്കാൻ തന്നെയല്ല അത് വധുവിനു കിട്ടിയത് വധു വധുവിൻറ്റെ ബന്ധുമിത്രാദികൾ വധുവിനോട് പോകുന്ന സമയത്ത് വരൻറ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്നേഹ സമ്മാനമായി വധുവിനു കൊടുത്തതാണ് അത് വര വരനോ വരൻറ്റെ കുടുംബത്തിനോ ഒരവകാശമില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെതന്നെ വധുവിന് എത്ര ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വന്നാലും ഇത്രയും സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും പവൻ സ്വർണ്ണം കിട്ടിയില്ലെങ്കിൽ കല്യാണം കഴിക്കില്ല എന്നു പറയും വധുവിന് വധുവിൻറ്റെ പേരിൽ വീട്ടുകാർ എഴുതിക്കൊടുത്ത സ്ഥലം നിർബന്ധിച്ച് ഭീഷണിയോടെ ഉപദ്രവിച്ച് അടക്കം വരൻറ്റെ കുടുംബം വധുവിൻറ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കാറുണ്ട് വളരെ ലജ്ജാവഹമായ ഒരു പ്രവൃത്തിയാണത് ഈ പ്രവൃത്തി ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്നു പറയുമ്പോൾ നമ്മൾ കേരളീയർക്ക് അതൊരു മാനക്കേടാണ് ഒരു നാണക്കേടാണ് ആ അതിനു വേണ്ടി നമ്മൾ പോരാടുകയും അതിനെതിരെ സംസാരിക്കുകയും നമ്മൾ ചെയ്യണം ചെയ്തിട്ടും ഇതിൽ പലസ്ഥലത്തും ഉപകാരപ്രദമല്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴും ആരും കാണാതെ ഈ പ്രവൃത്തികൾ ചെയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്